ഞാനിപ്പോൾ എടുത്ത ചിത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രൊഫ എൻ്റെ പ്രൊഫഷണൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫി ആണ് അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെടുത്ത ഫോട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കരണ്ട് അതായത് കരണ്ടുകാരൊക്കെ അതായത് ഈ മഴക്കാലത്തിൻ്റെ കുറച്ചു മുൻപേ വന്നിട്ട് പിന്നെ മരക്കൊമ്പുകൾ ഒക്കെ വെട്ടുമല്ലോ അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വല്ലിയൊരു അമ്മച്ചി പ്ലാവ് ഉണ്ടായിരുന്നു അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നമ്മൾ അമ്മച്ചി പ്ലാവ് എന്നാണ് വിളിക്കുക അതിന് അപ്പോൾ കുറേയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ ഒരു അൻപത് വർഷം പഴക്കമുണ്ടെന്നു തോന്നുന്നു അപ്പം അതിൽ എല്ലാ ശിഖരങ്ങൾ ഒക്കെ വെട്ടി അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വെട്ടിയിട്ട് എല്ലാം അതായത് സെറ്റാക്കി വെച്ച് അതായത് എല്ലാവരും പോയി അതായത് വെട്ടി അപ്പോൾ ഫുൾ ആയിട്ട് അവിടെ ഇങ്ങനെ കിടക്കുമായിരുന്നു അതായത് അന്ന് ഒരു ദിവസം കൊണ്ടൊന്നും പണി തീർന്നില്ല രണ്ടുമൂന്നു ദിവസമായിരുന്നു അപ്പോളെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസം ആണ് ഏകദേശം എല്ലാം തീർന്നത് അപ്പോൾ ഇവരിങ്ങനെ എല്ലാം വലിച്ചുവാരി ഇട്ടപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്തത്തെ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുൾപൊട്ടൽ ഒക്കെ വന്നിട്ട് ഒരു സ്ഥലം ഫുൾ ആയിട്ട് പോകില്ലേ ആ ഒരു അവസ്ഥയായിരുന്നു അത് കണ്ടപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതുകൊ അതാണ് അതുകൊണ്ടാണ് ആ ഫോട്ടോ ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട് ഞാൻ അത് എടുത്തു വെച്ചിരിക്കുന്നു